ആ ഞാൻ എൻ ഞങ്ങൾക്ക് നിങ്ങൾ ക്യാബ് ഡ്രൈവർ അല്ലേ അത് മൂന്ന് ആളുകൾക്ക് ഞങ്ങൾ മൂന്ന് ആളുണ്ട് കനോലി പ്ലോട്ടിലോട്ട് ഒന്ന് പോണം എത്രയായിരിക്കും വാടക വരിക രണ്ടായിരം രൂപ വാടകയോ അള്ളോ അത് കുറച്ച് കൂടിയല്ലോ ഞങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തപ്പോൾ ആയിരത്തി അഞ്ഞൂറാണല്ലോ അവർ പറഞ്ഞത് പിന്നെ നിങ്ങൾ എങ്ങനെ രണ്ടായിരം മേടിക്കുന്നു വളരെ മോശമാണല്ലോ ഇത്

അത് എങ്ങനെയാണെന്നറിയില്ല കാരണം ഞങ്ങൾ ഏജൻസി വഴി ബുക്ക് ചെയ്തപ്പോൾ രണ്ട് ആയിരത്തി അഞ്ഞൂറാണ് ഞങ്ങളോട് പറഞ്ഞത് പിന്നെ എങ്ങനെ നിങ്ങൾ രണ്ടായിരം വാങ്ങുന്നത് ശരിയാവില്ല ആ നിങ്ങൾ മലയാളികളോട് അല്ലെങ്കിലേ വളരെ മോശമായാണ് പെരുമാറുന്നത് ഇതിങ്ങനെ നടക്കില്ലല്ലോ ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെ ഒരു കാര്യം ചെയ്യ് ഒന്ന് എഴുനൂറിന് പോകാൻ പറ്റുമോ അതിൽ ഒന്ന് എഴുനൂറ്റിയമ്പത് അതിലും കുറേ എങ്ങനെ കുറയ്ക്കുക ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് ഞങ്ങളോട് ഏജൻസി ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുന്നത് ഏ ഞങ്ങൾ മൂന്ന് ആളേ ഉള്ളൂ ഒരു ഒരു ഒരു കാറിൽ നാലഞ്ച് ആളൊക്കെ പോവും ഇതിപ്പോൾ മൂന്ന് ആളേ ഉള്ളൂ വേറെ രണ്ട് പേരെ നിങ്ങൾ പുറത്തുനിന്ന് വേണേൽ വിളിച്ചോളൂ അത് ചെയ്യാൻ കഴിയില്ലേ ഒരു ഒന്ന് ഒന്ന് എണ്ണൂറിന് ഞാൻ ലാസ്റ്റ് ബുക്ക് ചെയ്താലോ ഏ ഒന്ന് എണ്ണൂറ് വരാം എന്താണ് നിങ്ങൾ ഡ്രൈവർമാർ വളരെ അതിലും നല്ലത് ഞങ്ങൾക്ക് നടന്ന് പോവുന്നതല്ലേ രണ്ടായിരം രൂപയ്ക്കൊക്കെ കനാൽ പ്ലോട്ട് പോവണമെന്നുണ്ടെങ്കിൽ ഒന്ന് തൊള്ളായിരം ഉറപ്പിക്കാം ആ ഓക്കെ എന്നാൽ ശരി ഞങ്ങളെ ലഗേജ് കൂടി ഉണ്ട് കേട്ടോ ഓക്കെ